വിവിധതരം ഉപകരണങ്ങൾ കൃഷിക്കായി ഉപയോഗിക്കപ്പെടാറുണ്ടെങ്കിലും വളരെ സാർവ്വത്രികമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് തൂമ്പ എന്ന് പറയുന്നത് കാലങ്ങളായി വളരെ മാറ്റങ്ങളൊന്നും കൂടാതെ അതിൻ്റെ വലുപ്പത്തിൽ മാത്രം ഏറ്റകുറച്ചിലുകൾ സംഭവിച്ച് കൊണ്ട് അതായത് പണിക്കാവശ്യം അനുസരിച്ച് എന്ത് എന്ത് ജോലിയാണോ അത് വച്ച് നമ്മൾ നടത്തേണ്ടത് അതനുസരിച്ച് അതിൻ്റെ വലുപ്പത്തിൽ ഏറ്റകുറച്ചിലുകൾ ഉണ്ട് എന്നതിനപ്പുറത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നില നിൽക്കുന്ന ഒരുപകരണമാണ് തൂമ്പ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തൂമ്പ നമ്മളുപയോഗിക്കുന്നത് കൂന കൂടാനും കൃഷിയെ സംബന്ധിച്ച് എന്ത് ജോലിക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ് തൂമ്പ എന്ന് പറയുന്നത് ഇപ്പോൾ കുഴിയെടുക്കാനാണെങ്കിലും കൂന കൂട്ടാനാണെങ്കിലും വളമിടാനാണെങ്കിലും മണ്ണെളക്കാനാണെങ്കിലും ഇതിനക്കെ തൂമ്പ നമുക്കത്യാവശ്യമായിട്ട് ഉണ്ട് തൂമ്പ കൂടാതെ നമ്മള് മണ്ണ് മാന്തി ചെറിയ ടില്ലറുകൾ ട്രാക്റ്ററുകൾ കാട് വെട്ടി സ്ഥലം വൃത്തിയാക്കാനായി വാക്കത്തി അരിവാള് ഇത്തരത്തിലുള്ള കൊയ്യാനായി അരിവാള് നമ്മുടെ വിളവെടുപ്പിൻ്റെ സമയത്ത് വാക്കത്തി ഇത്തരത്തിലുള്ള മൂർച്ചയുള്ള ആയുധങ്ങള് അങ്ങനെ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങള് നമ്മളുപയോഗിക്കുന്നതായിട്ട് ഉണ്ട്